ബൈക്ക് ബൈക്ക് പെട്രോളിനെ സംബന്ധിച്ചോളം പറയു അതിനകത്ത് ഉപയോഗിക്കുന്നത് പെട്രോളാണ് ഈ പെട്രോളിന്റെ വില വര്ദ്ധനവ് സംബന്ധിച്ചോളം സാധാരണക്കാരന്റെ ഒരു ഒരു യാത്ര ഉപകരണം ആണ് ബൈക്കെന്ന് പറയുന്നത് അതായത് താഴെക്കിടയരായ ഒരു സാധാരണക്കാര് അവര്ക്ക് അവരുപയോഗിച്ചോണ്ടിരിക്കുന്നത് ഒരു ഒരു വാഹനമാണ് ബൈക്ക് പക്ഷേ ഇടത്തരം അല്ലാത്തുള്ള ആള്ക്കാരും ഉപയോഗിക്കുന്നുണ്ട് സ എന്നാല് സാധാരണക്കാരെ പോലുള്ള ആള്ക്കാര്ക്കും ഉപയോഗിക്കാന് ഏറ്റോം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ബൈക്കെന്ന് പറയാം പക്ഷേ ഈ പെട്രോളിന്റെ അതിനെ സംബന്ധിച്ചോളം പറയുമ്പോൾ അതിനകത്ത് അത് അതിനകത്ത് ഒഴിക്കുന്ന പെട്രോള് അതിന്റെ വില വര്ദ്ധനവ് ഒരിക്കെലും ഒരു സാധാരണക്കാര്ക്ക് താങ്ങാന് പറ്റുന്ന രീതിലല്ല ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഒരു ദിവസം അൻപതാണെങ്കില് അടുത്ത ദിവസം അറുപത് അങ്ങനെ ഓരോ രണ്ടുമാസം കൂടുമ്പോളുവല്ല മൂന്ന് മാസം അല്ലെങ്കില് ആറുമാസം കൂടുമ്പോളോ വില വര്ദ്ധിക്കുന്ന ഒരു സാഹചര്യവാണ് അതുപോലെ തന്നെ ഈ ഈ ഇന്ധനം ഈ ഇന്ധനം ഇല്ലാതെ പെട്രോളല്ലാതെ ഇപ്പം അല്ലാത്ത രീതിയിലുള്ള വാഹനങ്ങളും ബൈക്കുകളും ഇറങ്ങിട്ടുണ്ട് പക്ഷേ ഇത് പരിതസ്ഥിതിക്ക് ഏറ്റോം ഉചിതമായുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ ബൈക്കുകൾ ബാറ്റ്റി വെച്ചിട്ടുള്ള ഒരു ബൈക്കുകൾ ഇറങ്ങിയിരിക്കുന്നത് പെട്രോളിനെ നിയന്ത്രിക്കാന് പെട്രോളിൻ്റെ പിന്നെ ഉപയോഗം കുറക്കുന്ന രീതി അന്തരീക്ഷ മലിനീകരണം മലിനീകരം ഇല്ലാതാക്കുന്ന പരിതസ്ഥിതി ക്ക് ഹാനികരം വരാത്ത രീതിയിലുള്ള ഒരു രീതിയിലാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതും നല്ലതാണ് പക്ഷേ ഈ പെട്രോളിന്റെ വില ഭയങ്കര വിലക്ക് ഡെയിലി കൂടുന്നതിൽ അഭിപ്രായമില്ല